നമ്മളുടെ നമ്മള് പത്രം വായിക്കുമ്പഴും എടുക്കുമ്പഴും എല്ലാം ഒത്തിരി ഒത്തിരി കാര്യങ്ങള് നമ്മള് മരണ പേജുകളിലും ഒക്കെ അപകട മരണങ്ങളും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഒക്കെ സ്ഥിരം കാണാറുണ്ട് അന്നൊക്കെ ഞാനത് സ്വാഭാവികമായിട്ട് അത് കടന്ന് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിലങ്ങനെ ഒരു അപകടം എൻ്റെ പാർട്ണർക്ക് സംഭവിച്ചപ്പഴാണ് ഞാനതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് ഞാൻ രണ്ടായിരത്തി അഞ്ചില് ഞാന് എൻ്റെ ഹസ്ബൻഡ് വെള്ളത്തിൽ വീണ് അറ്റാക്കായിട്ട് വെള്ളത്തിലോട്ട് വീണ് മരിക്കുകയാണ് ചെയ്തത് അന്ന് ആ വാർത്ത ഈ നാട്ടിലൊക്കെ ഭയങ്കര കോളിളക്കം കോളിളക്കമല്ല പിന്നെ ആൾക്കാരെല്ലാരും അറിഞ്ഞ് വന്ന് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ഇത് വന്നപ്പത്തേനും ഒത്തിരി ആൾക്കാരും ഇതു ഒക്കെ ആയിട്ട് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പബ്ലിസിറ്റിയും അന്ന് കിട്ടിയിരുന്നു പബ്ലിസിറ്റി ഇൻ ദ സെൻസ് പല തരത്തിൽ ഉള്ള വിമർശനങ്ങളും നല്ലതും ചീത്തയുമായിട്ടുള്ള വിമർശനങ്ങളുമെല്ലാം വന്നിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ വച്ചായിരുന്നു ഈ സംഭവം നടന്ന അത് കഴിഞ്ഞേച്ച് കണ്ണൂരായിരുന്നു ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് അതിന് ശേഷമാണ് ഞങ്ങള് പിന്നെ പത്തനംതിട്ട ടൗണില് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന അടുത്ത് നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടി വന്നു അപ്പം എൻ്റെ ജീവിതത്തിൽ ആ വാർത്ത എൻ്റെ ജീവിതത്തിൽ നിന്നല്ല ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് ആ വാർത്ത ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും പിന്നെ പറക്കം മുറ്റാത്ത രണ്ട് പെൺകുട്ടികളെ ആയിക്കൊണ്ടാണ് ഞാനന്ന് അതും ഞാന് എന്നെ ആ പത്രങ്ങളൊന്നും ആരും അന്ന് കാണിച്ചില്ല പക്ഷേ പിന്നെ ഞാൻ ആ പത്രം ചോദിച്ച് മേടിച്ച് ഞാൻ കണ്ടപ്പളാണ് അപകട മരണമാണ് പോസ്റ്റ്മാർട്ട് ഒക്കെ നടത്തിയപ്പം വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ അറ്റാക്കായിരിക്കും എന്നുള്ള ഇതില് നിന്ന് അന്നൊത്തിരി ഒത്തിരിയേറെ ഒത്തിരി ഒത്തിരി ഏറെ വിമർശനങ്ങള് ഞാനേറ്റു വാങ്ങി എൻ്റെ വീട്ടുകാരും നല്ല രണ്ട് കൂട്ടരുടെയും വീട്ടുകാര് വളരെ നല്ലവരായത് കൊണ്ട് അവരെന്നെ ഇതൊന്നും അറിയിച്ചില്ല അപ്പം ഞാനെന്നും ഇപ്പോള് പത്രത്തിൽ അങ്ങനെ വെള്ളത്തിൽ വീണ് മരിച്ച വാർത്തകള് നിത്യം ഒരു സംഭവമായിട്ട് വരുമ്പഴെല്ലാം ഞാനതിനെ എൻ്റെതുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തില് പുള്ളി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ മാനേജറായിട്ട് പത്തനംതിട്ട വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ സോഡിയം കുറഞ്ഞ് പോയിട്ട് ചില അബ്നോർമാലിറ്റി കാണിച്ചപ്പം മോള് പത്തിൽ പഠിക്കുന്നതായത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ അല്ലെ മക്കൾക്കും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞങ്ങള് രണ്ട് പേരും വെവേറെ പോയി പിള്ളേരെ വീട്ടിൽ ഒരാളെ നിർത്തി അങ്ങനെ ഞങ്ങള് പോവുകയായിരുന്ന് ഇത് അപ്പം ഞാൻ പോയി തിരിച്ച് വന്ന് കഴിഞ്ഞ് ഒരു രണ്ടായിരത്തഞ്ച് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഒരു ഞായറാഴ്ചയാണ് ശനിയാഴ്ച ജോലിയും കഴിഞ്ഞ് വന്ന് പുള്ളി അവിടെ പോയി അത് കഴിഞ്ഞ് അമ്മെനെ ഒന്ന് ജസ്റ്റ് കണ്ട് കഴിഞ്ഞ് പുഴയിൽ കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അന്നേരമാണിത് മരിച്ചത് അത് ഒക്ടോബർ രണ്ടാം തിയതി അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു ഒരു ഗാന്ധി ജയന്തി ആയിട്ടന്ന് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം ആ ഒരു സംഭവം ഞാന് പലപ്പൊഴും പത്രം വായിക്കുമ്പളും എൻ്റെ പിള്ളാര് ടൂറ് പോകുമ്പഴും ഒക്കെ ഞാൻ പറയും മക്കളെ വെള്ളത്തിൽ ഇറങ്ങരുത് വെള്ളത്തിൽ ഇറങ്ങാം പക്ഷേ അവർക്ക് ഞാനനുഭവിക്കുന്ന ദുഖവും അവരനുഭവിക്കുന്ന ദുഖവും രണ്ടും രണ്ടാണ് അവരവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള അല്ലെങ്കില് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് അവര് കടന്ന് പോകുമ്പം അവരുടെ പാർട്ണർക്ക് അത് അറിയത്തില്ലാന്ന കൊണ്ടായിരിക്കും രണ്ട് പേരും വെള്ള ടൂറിനൊക്കെ ഔട്ട്സൈഡ് കേരള അല്ലേൽ ഔട്ട്സൈഡ് ഇന്ത്യ പോകുമ്പോഴത്തേനും വെള്ളത്തിലൊക്കെ ഇറങ്ങും ഞാനിവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നുള്ളതെ എനിക്കൊള്ളു അങ്ങനെ ഞാന് എന്നെ ആകെ മാറ്റി മറിച്ച എൻ്റെ ജീവിതത്തെ ആകെ മാറ്റി മറിച്ച ഒരു ഒരവസരമായിരുന്നു പത്തനംതിട്ട ടൗണില് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ഞങ്ങള് ജീവിച്ച് കൊണ്ടിരുന്നിടത്ത് നിന്ന് അവിടുന്നാണ് ഈ ചുങ്കപ്പാറ പോലെ ഉള്ള ഒരു റിമോട്ട് ഏരിയയിൽ എനിക്ക് വന്ന് ആളെ അറിയാതെ ആൾക്കാരെ അറിയില്ല വീട്ടുകാരെ മാത്രം അറിയാം അങ്ങനെ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് പുരയുടെ പണി പോലും കംപ്ലീറ്റ് ആകാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾക്കിവിടെ വന്ന് താമസിച്ചു താമസിച്ചപ്പം ഞാനും എൻ്റെ ഇളയ മോളും തന്നെ ഉണ്ടായിരുന്നുള്ളു ഒത്തിരി ഒത്തിരി ഒത്തിരി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകള് അനുഭവിക്കേണ്ടി വന്നു അതെൻ്റെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വാർത്ത ആയിട്ടാണ് വരുന്നത്